ഉത്സവങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ സദ്യയാണ് ഉത്സവ ഉത്സവങ്ങളിലൊക്കെ ഉണ്ടാക്കുക പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വലിയ വലിയ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു സാമ്പാറ് ഒരു ഉപ്പേരി ഒരച്ചാറ് ഒരു പപ്പടം അതു മാത്രമേ ഉണ്ടാവുകയുള്ളു പിന്നെ ഒരു പായസം ഉണ്ടാകും പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലാണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചില അമ്പലങ്ങളിലൊക്കെ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും കാരണം ചെറിയ ചെറിയ ചെറിയ രീതിയിലുള്ള പരിപാടിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും അവിയൽ കൊടുക്കും പച്ചടി കൊടുക്കും കൂട്ടുകറി കൊടുക്കും അങ്ങനെയുള്ള ഒരുപാട് കറികളുണ്ടാകും അതെല്ലാം അവർ കൊടുക്കും പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഉത്സവങ്ങളിൽ സാമ്പാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക പക്ഷെ നമ്മളിപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഉത്സവങ്ങളിൽ പോയിട്ട് ഒരു ഒരു പിടി ചോറ് തിന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് കാരണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വീട്ടിലിപ്പോൾ ആണെങ്കിൽ നമ്മൾ അങ്ങെനയുള്ള കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റൊരു ടേസ്റ്റ് നമുക്കൊരിക്കലും കിട്ടില്ല പക്ഷെ നമുക്ക് ഉത്സവങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടേസ്റ്റൊക്കെ തോന്നും അതുപോലെത്തന്നെ അതായത് നല്ല ഫുഡും ആയിരിക്കും നല്ല അടിപൊളി അതായത് ഈ സാമ്പാറും അതെല്ലാം കൂടി കൂട്ടി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അതായത് ഇലയിൽ ചോറ് കഴിച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് പായസം കുടിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീൽ തന്നെയാണ്